മലയാള ഭാഷ നേരിടുന്ന വെല്ലുവിളികളാണ് നമ്മളിന്ന് പറയുന്നത് അത് എന്താണെന്നുവച്ചാൽ മലയാള ഭാഷ നമ്മളിൽ ഇന്നു വളരുന്ന ഇന്നു വളർന്നുവരുന്ന കുട്ടികളെല്ലാം നമ്മൾ ഇംഗ്ലീഷാണ് വായിൽ വച്ചുകൊടുത്തു വളർത്തുന്നത് ഇംഗ്ലീഷാണ് ഇന്നത്തെ തലമുറയെ മുന്നോടിയായിട്ടു ജനിക്കാനും ജനിച്ചുകഴിഞ്ഞ കുട്ടികളില് നമ്മള് ഇംഗ്ലീഷാണ് അവരെ കൈകാര്യം ചെയ്യുന്നത് മലയാളം നമ്മൾ പണ്ടുപണ്ടു കാലങ്ങളിൽ ഉണ്ടായിരുന്ന ആളുകൾ അതായത് മലയാള ഭാഷയാണ് എല്ലാം മലയാളമാണു മാതൃഭാഷയെന്നു പറഞ്ഞിട്ടാണ് നമ്മൾ കുട്ടികളെ വളർത്തിയിരുന്നത് ഇപ്പോള് നമ്മൾ മാതൃഭാഷേനെക്കുറിച്ചു സംസാരത്തിൽ മാത്രമാണ് മാതൃഭാഷ മലയാ ളം പക്ഷേ ഇംഗ്ലീഷില്ലാണ്ട് പൗരന്മാർ കുട്ടികൾക്കും വളർച്ചയിലും അവരുടെ വിദ്യാഭ്യാസത്തിനു യോഗ്യതയ്ക്കും എല്ലാം ഇംഗ്ലീഷാണ് എല്ലാവരും കൈകാര്യം ചെയ്തു വരുന്നത് പക്ഷേ നമ്മുടെ മലയാളം മലയാള ഭാഷ ഇപ്പോള് ഒരുപാട് താഴ്ത്തപ്പെട്ടിരിക്കുന്നു നമുക്ക് ഓരോരുത്തർക്കും മലയാള ഭാഷ നമ്മളുടെ കുട്ടികളുടെ ആദ്യക്ഷരമായിട്ട് ആ അമ്മ ആ എന്നൊക്കെയാണ് എഴുതിക്കൊണ്ടിരുന്നത് ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല ഇംഗ്ലീഷാണ് ഇംഗ്ലീഷില്ലാതെ ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് എല്ലാവരും പോകുന്നത് മലയാളത്തെ നമ്മൾ താഴ്ത്തപ്പെട്ടിരിക്കുന്നു അത് അങ്ങനെ പാടില്ല നമുക്ക് മലയാള ഭാഷയാണ് നമ്മുടെ മാതൃഭാഷ അത് നമുക്കെന്നും ഉള്ളതാണ്